ആ തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ ഇടുക്കിയിലെ അവിടെ പെരിയാറീനോടൊക്കെ അനുബന്ധിച്ചുണ്ട് അപ്പോളവിടെ നിങ്ങൾക്ക് മെന്നാ സ്വാഗതം എല്ലാത്തരം മൃഗങ്ങളെയും പിന്നെ അത്പ് മാത്രമല്ല പിന്നെ അവിടത്തെ തടാകങ്ങളുണ്ട് നല്ല സൗന്ദര്യമുള്ള ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അവയൊക്കെ കാണാനായിട്ട് വളരെ ഹൃദ്യമായ സ്വാഗതമാണ് തരുന്നത് അപ്പോള് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സമയമൊക്കെ പറഞ്ഞാല്മതി അത് ഞങ്ങള് ക്രമീകരിക്കുന്നതാണ് ആ രാവിലെ ഒമ്പത് മണിയാവുമ്പോള് നമ്മള്ക്കവിടെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്താല് അഞ്ച് മണിവരെ നമ്മള്ക്കതിനകത്ത് ചെലവഴിക്കാം നിങ്ങള് ഫുഡൊക്കെ അതിനകത്ത് ഉള്ളിലുണ്ട് ഫുഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കാ ഫുഡ് ഉള്ളിലുള്ള ഹോട്ടലിന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ റെസ്റ്റോറന്റുകൾ പോലുള്ള ഉണ്ട് അവിടെ നിങ്ങള്ക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങള് വീട്ടിൽ നിന്നും ഫുഡ് കൊണ്ടുവരുന്നതിനേ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ അത് നമ്മളവിടൊക്കെ വൃത്തികേടാവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉള്ളിലെ റസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ നിങ്ങള്ക്കീ പലതരം മൃഗങ്ങളെ കാണുകയും പിന്നെ തടാകങ്ങള് പുൽമേടുകള് ഇതൊക്കെക്കണ്ട് ന്നാ പോകാവുന്നാണ് പിന്നവിടൊരു ചെറിയ ഒരു തടാകത്തിലൊരു ബോട്ടിങ്ങോണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ അതിനും അതും ആസ്വദിക്കാവുന്നതാണ് ഒണ്ട് ഇതിനടുത്ത് തന്നെ രണ്ടുമൂന്ന് റിസോർട്ടുകളുണ്ട് അത് നിങ്ങള് നേരത്തെ എന്നാ വരുന്നതെന്ന് മുൻകൂർ അറിയിക്കയാണെങ്കില് ആ റിസോർട്ടിൻ്റെ റിസോർട്ടിൽ അറിയിക്കുകയും അതിനു വേണ്ട ക്രമീകരണങ്ങള് ചെയ്യൂകയും ചെയ്യാവുന്നതാണ് നേരത്തെതന്നെ അത് വിവരം വിളിച്ച് പറഞ്ഞാല് മതി അപ്പോൾ നമ്മള് അവിടെ വേണ്ട ക്രമീകരണങ്ങള് നടത്തും അവിടെ താമസിക്കാം പിന്നെ തണുപ്പൊക്കെയാണെങ്കില് തണുപ്പിനു പറ്റിയ വസ്ത്രങ്ങള് എല്ലാം അവര് തരുന്നതായിരിക്കും അതിനെല്ലാം റെൻ്റുണ്ട് നല്ല നല്ല ഇച്ചിരെ കൂടിയ റെൻ്റോക്കെയാരിക്കും നല്ല നല്ല റെസ്റ്റോറ ഈ ഹോം സ്റ്റേ ആണ് അവിടെയെല്ലാം ഉള്ളത് നല്ലെ ആഹാരവും ഉണ്ട് നമ്മുടെ വീട്ടിലെ പോലെയുള്ള ആഹാരം വൈകുന്നേരം അവിടുന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് വിളിച്ചു പറയുക മാത്രം ചെയ്താല് മതി നേരത്തെ ആ ആണ് മൂന്ന് നമ്മള് വൈ ഉച്ച കഴിഞ്ഞ് മൂന്നു തൊട്ട് സോറി രണ്ട് തൊട്ട് നാലുവരെയാണ് നമ്മള് ബോട്ടിങ്ങിനുവേണ്ടി ഉള്ളതേ അതവിടെ അതിന് നല്ല സെക്യൂരിറ്റി ഉണ്ടേ അത് ബോട്ടിൽ കയറുമ്പോൾ ഇടേണ്ട ഉപകരണങ്ങള് ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട് അപ്പോഴതു നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടതിനുശേഷം അത് നമ്മുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് മറ്റു തടസങ്ങളൊന്നുമില്ല സുരക്ഷത്തെത്തെ കുറിച്ച് ഒട്ടും പേടിക്കണ്ട കാര്യമില്ല മൃഗശാലയായിട്ടില്ല നമ്മളീ കാ എന്നാ അവിടെ കുറച്ച് മൃഗങ്ങള് മാന് അതുപോലുള്ള നമ്മുടെ നമ്മളെ അക്രമിക്കാത്ത മൃഗങ്ങളെയൊക്കെ മാത്രമേ നമ്മളവിടെയാ ഭാഗത്തുള്ളൂ അതിനെയൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം അത് പ്രത്യേക സംരക്ഷണത്തേല് സംരക്ഷണത്തിലാണ് ആന എന്നാ ചെറിയ ചെറിയ മൃഗങ്ങള് പിന്ന് മാന് അതുപോലെ എല്ലാവർക്കും വളരെ രസകരമായി തോന്നത്തക്ക വിധത്തിലുള്ള പിന്നെ കുരങ്ങന്മാരുണ്ട് വലിയ വലിയ മരങ്ങളില് അങ്ങനെയുള്ള ഒക്കെ മാത്രോ ഒള്ളു അതേ അത് അപകടമൊന്നും ഉള്ളതുമല്ല അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഇല്ലാതെ ഇല്ല വനമെന്നു പറഞ്ഞാല് ഉള്ളിലേക്കൊന്നും നിങ്ങള് പോകുന്നുമില്ല നമ്മുടെ പ്രത്യേക ഒരു സംരക്ഷണ വലയത്തിലുള്ള ഭാഗത്ത് മാത്രമേ എല്ലാവരും എല്ലാവരെയും പ്രവേശിപ്പിക്കയുള്ളു നടക്കാനുള്ളത് ഒരു രണ്ട് കിലോ മീറ്ററോളം നടക്കാനുണ്ടേ അതിൻ്റെ രണ്ട് വശത്തും നല്ല കാഴ്ചകളുണ്ട് അവസാനം ചെല്ലുന്നേടത്ത് ഒരു ചെറിയ അരുവി പോലുള്ള സ്ഥലമുണ്ട് അവിടെ വേണേ നമ്മള്ക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യാം അതിനകത്തിറങ്ങുകയും കാലൊക്കെ ഒന്ന് നനക്കുകയും വേണ്ടവർക്ക് കുളിക്കുകയും ചെയ്യാം അവിടെ അപകടമുള്ള സ്ഥലമേ അല്ല അവിടെ ആ കല്ലിൻ്റെ എടകളൂടൊക്കെ നമുക്ക് നടക്കുകയും ആ പിന്നെ നല്ല ഫോട്ടോകളെടുക്കുകയും അവിടെ വിശ്രമിക്കുകയും ഒക്കെ ചെയ്യാം ആ ഓക്കെ താങ്ക്യൂ